എനിക്ക് ചെറുപ്പം മുതലേ ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡാൻസർ ആവണം എന്നു വളെരെയധികം ആഗ്രഹിച്ച് നടന്നൊരാളാണ് അപ്പം ചെറുപ്പത്തിൽ ഞാൻ ആരുടെ കൂടെ അതായത് എവിടെയും ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് നമ്മൾ മൊബൈൽ വഴി ടി വി വഴി അതൊക്കെ കണ്ടിട്ട് പഠിക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആയപ്പോഴത്തേക്കും നമ്മൾ കലാമണ്ഡലത്തിൽ പോയി ചേർന്നു അവിടെ ചെന്ന് ചേർന്നത് തൃശ്ശൂർ ആയിരുന്നു അവിടെ ചേർന്നു ചേച്ചീന്റെ കൂടെ നിന്നിട്ടാണ് പഠിച്ചത് അവിടെ സ്റ്റേ ഒക്കെ അപ്പോൾ അവിടെ നിന്നിട്ട് മാമിൻ്റെ നിത്യാ മാമിൻ്റെ കീഴിൽ നിന്നിട്ട് ഞാൻ നൃത്തം പഠിച്ചു അത് സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്നു ചോദിക്കുക ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ സംവിധാനം ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ സംവിധാനം ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് തന്നെ ഒരു ഈ നമ്മൾ ഡാൻസ് മൊത്തം പഠിച്ചു കഴിയുമ്പം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം രംഗപൂജ എന്നുപറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ രംഗപൂജയ്ക്ക് നമ്മൾ ഇപ്പോൾ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് നിന്നിട്ട് നമ്മളത് പെർഫോം ചെയ്യും പെർഫോം ചെയ്യുമ്പോൾത്തന്നെ അവരത് വീഡിയോ എടുക്കുക അതു ന്യൂസിൽ കൊടുക്കുക അങ്ങനത്തെയൊക്കെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കീഴ്വഴക്കങ്ങൾ ആയിരുന്നു സൊ അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലായപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു രംഗപൂജ അല്ലെങ്കിൽ നമ്മളെ അരങ്ങേറ്റം എന്നു പറയും അരങ്ങേറ്റ ടൈമിൽ നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെ ഞാൻ ഭരതനാട്യം ആയിരുന്നു ഭരതനാട്യം കളിച്ചു അങ്ങനെ അവരത് സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം നൃത്തം അങ്ങനെ സംവിധാനം ചെയ്ത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാനലിലൊന്നും കൊടുത്തിട്ടില്ല നമ്മുടെ ആ ന്യൂസ് ന്യൂസ് ചാനലിൽ കൊടുത്തു അതേപോലെ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ നമ്മളത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെയധികം എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ആണ് അപ്പം അങ്ങനെയാണ് സംവിധാനം എൻ്റെ നൃത്തം എൻ്റെ നൃത്തം ഫോണിലേയ്ക്ക് പകർത്തിയിരുന്നത് അങ്ങനെയല്ലാണ്ട് നമ്മളെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽനിന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സ്വന്തം നൃത്തം ഗ്രൂപ്പായിട്ട് ഇതിനിടയിൽ നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഫോണിലൊക്കെ ഇട്ട് നല്ല റീച്ച് കിട്ടിയ ഒരു സംഭവം ആയിരുന്നു അപ്പം സ്വന്തം നൃത്തം എന്നു പറയുമ്പോൾ എനിക്കാകെ നമ്മുടെ മൈന്റിൽ വരുന്നത് ഈ ഒരു കാര്യമാണ്